നിങ്ങൾ എന്നാണ് ബുക്ക് എടുത്തത് നിങ്ങൾ എത്ര നാളായി എടുത്തിട്ട് ഏത് ബുക്കാണ് എടുത്തത് ഒരു മാസം കഴിഞ്ഞോ

നിങ്ങൾ എത്ര മാസം എത്ര മാസങ്ങളായോ അതോ ദിവസങ്ങളായിട്ടുള്ളോ ആ അതെ ഒരു മാസമായി അപ്പം അതിന് ഫൈൻ അടയ്ക്കണം കേട്ടോ ആ അമ്പത് രൂപയാണ് വിട്ടുവീഴ്ച്ച നമുക്ക് ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഒരു വിട്ടുവീഴ്ച്ച ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എല്ലാവരും ഇതേ ആവശ്യമായിട്ട് വരും അപ്പം അത് നമുക്ക് അത് ഭയങ്കരം ഒരു ഇഷ്യുസ് അല്ലെ അത് അങ്ങനെ ചെയ്യുന്നത് ഒരു മാനേഴ്സ് അല്ലല്ലോ അങ്ങനെ പലരും പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല അത് എൻ്റെ എൻ്റെ ജോലിനെ തന്നെ അത് ബാധിക്കുന്നതല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വച്ചാൽ നമ്മൾ ആദ്യമെ തന്നെ നമ്മൾ ഒരു കാര്യമെടുത്ത് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചേൽപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ഏ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പക്ഷം നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ എന്നോട് അത് വിളിച്ചു പറയണമായിരുന്നു ഇപ്പം ഇത്രയും ദിവസവായില്ലേ എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എന്നോട് വിളിച്ചു പറയാമായിരുന്നു ഇന്ന ഒരു കാരണം കൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് നിങ്ങൾ അത് ചെയ്തിട്ടില്ല ഇനി ഇനി അതിനെ കുറിച്ചു ഞാൻ കൂടുതലായിട്ട് പറയണമെങ്കിൽ ഞാൻ ഇനി എനിക്ക് മുതിർന്നവരോട് ഞാൻ ഇത് ചോദിച്ചു വേണം എനിക്ക് അത് ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും നിങ്ങൾ ഏത് ബുക്കാണ് കൊണ്ടുപോയത് നിങ്ങൾ അത് ഫുള്ള് വായിച്ചതാണോ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ എന്തെങ്കിലും വരുത്തി വച്ചിട്ടുണ്ടോ ഇല്ല എല്ലാവരും ഒരേ പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ഒരു വിട്ടുവീഴ്ച്ച ചെയ്തു കഴിഞ്ഞാൽ പിന്നേയും നിങ്ങൾ അത് പിന്നത്തെ പ്രാവശ്യവും നിങ്ങൾ ആ രീതി തന്നെ പെരുമാറൂള്ളു നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനം നിങ്ങൾ എനിക്ക് തിരിച്ചു കൊണ്ടു തരത്തില്ല രണ്ട് പേരും അപ്പോഴും നിങ്ങൾ വീണ്ടും പറയും എനിക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്തു തരണമെന്ന് പറയും അത് പിന്നേയും പിന്നേയും അത് പിന്നേയും അത് മറ്റുള്ളവരിലേക്കും അത് എത്തുമ്പോഴും അതിലും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാതെ ഫൈൻ അടയ്ക്കുക എന്നുള്ളത് അമ്പത് രൂപയല്ലേ ഉള്ളൂ അമ്പത് രൂപ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഉണ്ടല്ലോ ആ അമ്പത് രൂപ നിങ്ങൾ എനിക്ക് ഫൈൻ അടച്ചു കൊണ്ട് തരിക ഓക്കേ